കുട്ടിക്കാലത്ത് ചരിത്ര പഠനം ആസ്വദിച്ചിട്ട് തന്നെയാന്ന് പഠിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും നമ്മൾ സ്വാധീനിച്ച ഒരു ചരിത്ര സംഭവമെന്നു പറയുന്നത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് താജ്മഹലിനെ കുറിച്ചിട്ടുള്ളതാണ് താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് ആഗ്രയിലെ യമുന നദിക്കരയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നുള്ളത് മുഗൾ വാസ്തു വിദ്യയുടെ ഉത്തമ ഉദാഹരണമായിട്ടാണ് താജ്മഹലിനെ പറയപ്പെടുന്നത് പൂർണ്ണമായിട്ടും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ ഏകദേശം ഇരുപത്തി രണ്ടു വർഷം എടുത്തു എന്നാണ് പഠിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി ആയ മുംതാസ് മഹലിന്റെ ഓർമ്മക്കായിട്ട് ആണ് താജ്മഹൽ പണി കഴി പണി കഴിപ്പിച്ചിട്ടുള്ളത് താജ്മഹൽ പണിയാൻ ഷാജഹാൻ ഏറ്റവും പ്രേരണ ആയിട്ടുള്ളത് എന്നു പറയുന്നത് തന്റെ പത്നി ആയിട്ടുള്ള മുംതാസ് മഹലുമായിട്ടുള്ള അഗാധമായ പ്രേമമാണ് താജ്മഹലിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ലോകത്തിന്റെ പൈതൃക യുണസ്കോ പൈതൃക പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെണ്ണക്കല്ലിൽ പണിത സൗധം ഇതിൽ താജ്മഹലിന്റെ വെണ്ണക്കല്ലിൽ പണിത സൗധം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് വർഷത്തിൽ തുടങ്ങിയ പണി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ തീർന്നു എന്നാണ് ചരിത്രത്തിൽ ചരിത്രത്തിൽ അത് കണക്കാക്കപ്പെടുന്നത് ഏകദേശം പതിനായിര കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഈ താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ താജ്മഹൽ അത് പണി കഴിപ്പിച്ച ശിൽപ്പി എന്നറിയപെടുന്നത് ഉസ്താത് അഹമ്മദ് ലഹോറി എന്ന് പറയുന്ന വ്യക്തിയാണ് താജ്മഹലിനെ രവീന്ദ്ര കവിയായ രവീന്ദ്ര നാഥ ടാഗോർ വിശേഷിപ്പിച്ചിട്ടുള്ളത് കാലത്തിന്റെ കവിൾ തടത്തിന്റെ കണ്ണുനീർ തുള്ളി എന്നാണ് അങ്ങനെയാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് അതിൽ ഏകദേശം താജ്മഹൽ പണി തീർത്തിരിക്കുന്നത് ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ആഗ്ര നഗരത്തിന്റെ തെക്കു ഭാഗമായ യമുന നദിയുടെ തീരത്താണ്